നമ്മക്കിപ്പൊന്ന് വച്ചിട്ടുണ്ടെങ്കില് മലയാള ഭാഷാന്ന് പറഞ്ഞാൽ നമ്മുടെ അതായത് മാതൃഭാഷയാണ് നമ്മളത് പണ്ട് തൊട്ടെ നമ്മളത് കേട്ടാണ് വളർന്നത് അപ്പോൾ എന്താന്ന് വച്ചിട്ടുണ്ടെങ്കില് വ്യാപാരം വാണിജ്യം അല്ല എല്ലാ കാര്യത്തിനും നമുക്ക് മാലയാള ഭാഷ നിർബന്ധമാണ് പൊതുവെ പറയുവാണെങ്കില് നമ്മളിപ്പം വ്യാപാരത്തിനാണെങ്കി വാണിജ്യത്തിനാണെങ്കി നമുക്ക് അതായത് നമ്മക്ക് കമ്മ്യൂണിക്കേഷൻ വിവരവിനിമയം ചെയ്യണങ്കില് നമുക്ക് മലയാള ഭാഷ തന്നെ നിർബന്ധമാണ് പക്ഷേ ഇപ്പ എല്ലാരുംന്ന് വച്ചിട്ടുണ്ടെങ്കി അതിലേക്ക് ഇംഗ്ലീഷ് കൊണ്ട് ചേർക്കലും പിന്നിപ്പൊ ഹിന്ദിക്കാരുടെ കാലാണ് അതായത് നമ്മളെക്കാളും ഇപ്പോ കേരളീയരെക്കാളും കൂടുതല് കേരളത്തിലുള്ളത് ഹിന്ദിക്കാരാണ് പിന്നെ എന്താന്ന് വച്ചിട്ടുണ്ടെങ്കില് മലയാള ഭാഷയാണ് നമ്മുടെ അതായത് നമുക്ക് അത്രയും നമുക്ക് നമ്മുടെ അമ്മമാരോടും അച്ഛന്മാരോടുള്ള ബന്ധം തന്നെ നമുക്ക് മലയാള ഭാഷയോടുണ്ട് അപ്പോൾ മലയാള ഭാഷ വ്യാപാരത്തില് ഇപ്പം നമുക്ക് വ്യപാരത്തില് പലകാര്യങ്ങൾ സംസാരിക്കാനുണ്ടാകും അതുപോലെയാണ് വാണിജ്യത്തിലും അപ്പോ അതിലൊക്കെ മലയാള ഭാഷൻ്റെ പങ്ക്ന്ന് വച്ചിട്ടുണ്ടെങ്കി അത് വലിയൊരു പങ്ക് തന്നെയാണ് വ്യാപാരത്തിലാണെങ്കിലും വാണിജ്യത്തിലാണെങ്കിലും അത് മാത്രല്ല അതുൾപ്പെടെയുള്ള പ്രാദേശിക സമ്പത്ത് വ്യവസ്ഥയിൽ എല്ലാത്തിലും തന്നെ മലയാളത്തിൻ്റെ ഭാഷ ഭയങ്കര ഒരു പങ്ക് വഹിക്കുന്നുണ്ട്